ഹലോ ഹലോ

പിന്നെ ആ ഓക്കെ അങ്ങനെ ആണല്ലേ അപ്പോൾ കുട്ടി എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ പിന്നെ വൊമിറ്റ് ചെയ്യൽ വോമിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ഇപ്പം എത്ര പ്രാവശ്യം വോമിറ്റ് ചെയ്തു ആ മുമ്പ് കൊറോണ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആ ആ ഉണ്ട് ആ മഴ നന്നായിട്ട് കൊണ്ടിരുന്നോ നന്നായിട്ട് കൊണ്ടിരുന്നോ മഴ ആ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ ഇതിന് മുമ്പ് ആ ഇത് ഫസ്റ്റ് ടൈം ആണോ ഡോക്ടറെ കാണിക്കുന്നത് ആ അപ്പോൾ പിന്നെ മരുന്ന് ഇപ്പം എന്തെങ്കിലും ഏതാണ് മരുന്ന് കഴിച്ചത് ഏത് കമ്പനിയുടെ മരുന്നാണ് കഴിച്ചത് പാരസെറ്റമോൾ പേരോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയാൻ വഴി ഉണ്ടോ ആണോ മാരീഡ് ആണോ ഇയാൾ ആ അപ്പോൾ വേറെ വല്ല സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഐ മീൻ ഷുഗർ കൊളസ്ട്രോൾ പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ അതിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ താങ്കൾ താങ്കൾ അതെങ്ങനെയാണ് പിന്നെ ഡെയിലി ഒരു ഹോസ്പിറ്റലിലത്തെ മരുന്ന് തന്നെയോ അല്ലെങ്കിൽ വേറെ വേറെ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ച് മരുന്ന് വാങ്ങുന്നത് ആണോ ഒരു ഒറ്റ ഹോസ്പിറ്റൽ കാണിച്ച് അവിടെ നിന്നുതന്നെ മരുന്ന് വാങ്ങി അവിടെ നിന്നുതന്നെ കഴിക്കുന്നതാണ് ആ അപ്പം ഈ അടുത്ത കാലത്ത് എങ്ങാനും കൊളസ്ട്രോൾ ഷുഗർ അങ്ങനത്ത ടെസ്റ്റ് ചെയ്തിരുന്നോ ആ ഇയാളുടെ കല്ല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര ആയി അത് ശരി ആ പിന്നെ ബാക്കി ഹസ്ബൻഡ് അപ്പോൾ ഇപ്പം മെഡിസിൻ എഴുതി തരുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫർദർ ചെക്കപ്പ് ചെയ്യേണ്ടി വരും എന്താണ് ഇപ്പം എങ്ങനെയാണെന്ന് എല്ലാം നോക്കി ഒക്കെ ചെയ്തിട്ട് വേണം മെഡിസിൻ എഴുതാൻ അപ്പോൾ എപ്പോഴാണ് ആ ആ ആ ഓക്കെ അപ്പോൾ നാളെ അപ്പോയിൻമെന്റ് ഒരു രണ്ട് മണിക്ക് ശേഷം വന്നോളൂ രണ്ട് മണിക്ക് ശേഷം വന്നിട്ട് കേബിളിൽ ബുക്ക് ചെയ്താൽ മതി ഇന്ന ഡോക്ടർ ആണെന്ന് ഉള്ളത് അത് ഇപ്പം പിന്നെ നിങ്ങൾ കാണിച്ചിരുന്ന ഷീറ്റിൽ നിന്ന് അതായത് മരുന്നും മെഡിസിനും തരാൻ കഴിച്ച മെഡിസിൻ്റെയും അതിൻ്റെ ഷീട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് വരണം ഇവർ മുമ്പ് കാണിച്ച ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ എന്താവണം എടുത്ത് കൊണ്ട് വരണം അതിന് ശേഷം എല്ലാം നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്താക്കാം എന്നതാണ് ചെയ്യുക എന്ന് നോക്കിയിട്ട് ചെയ്യാം ഓക്കെ അപ്പം വെൽക്കം